നീലക്കുറിഞ്ഞി പൂവിട്ടതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് ഞാൻ പറയുന്നത് മൂന്നാറിലാണ് വീണ്ടും കാഴ്ച്ചയുടെ വിരുന്നൊരുക്കി കുറിഞ്ഞി പൂവിട്ടത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായിട്ട് ശാന്തം പാറക്ക് സമീപം സ്ഥിതിചെയ്യുന്ന കള്ളിപ്പാറയിലും കള്ളിപ്പാറയിലെ മലനിരകളിലും നീലകുറിഞ്ഞി പൂവിട്ടിരിന്നു തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടം ശാന്തം പാറയിൽ നിന്ന് മൂന്നാർ തേക്കടി സംസ്ഥാന പാതയിലൂടെ ആറ് കിലോമീറ്ററ് സഞ്ചരിച്ചാലാണ് കള്ളിപ്പാറയിൽ എത്തുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞി വിരിയുന്നത് എന്നതാണ് വിലയിരുത്തൽ വർഷങ്ങൾക്ക് മുമ്പ് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഭാഗമായ രാജ മലയിലും നീലക്കുറിഞ്ഞി പൂത്തത് വലിയ വ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു അതുപോലെ ഈ നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ് പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിയിൽ കണ്ണിന് കുളിരേകുന്ന പൂക്കളുടെ വസന്തം എന്ന് തന്നെ പറയാം നീലക്കുറിഞ്ഞിയെ നമുക്കങ്ങനെ കണ്ട് കൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ ഒരു മനസുഖം മനസ്സിന് തന്നെ നല്ലൊരു സുഖമുള്ള കാഴ്ച്ചയാണ് ഈ പൂക്കളുടെ വസന്തം എന്ന് പറയുന്നത് അപ്പം നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ വിരുന്ന് വരുന്ന ഒരു അത്ഭുതം തന്നെയെന്ന് പറയാം